ഹലോ

എവിടുന്നാണ് അംഭോജീന്ന് അല്ലേ ആ ആ ഹാ ആ ആ ഉം എത്രപേർക്കാ പത്ത് പേരല്ലേ ആ ആ ആ പത്ത് പേർക്ക് പോവാൻ പറ്റിയ വണ്ടി വേണമല്ലേ അതെ വണ്ടി അവൈലബിൾ ആണ് നമുക്കെ നമുക്ക് ഏത് എത്രപേർക്ക് പോകാനുള്ള വണ്ടി അമ്പത് പേർക്ക് വരെ പോവാനുള്ള വണ്ടി നമ്മുടെയിൽ ഉണ്ട് ബസ്സ് അത് കുഴപ്പം ഇല്ല നമുക്ക് പത്ത് പേർക്ക് പത്ത് പേർക്കായിട്ടുള്ള സീറ്റ് ഉള്ള ഇല്ല നമുക്കൊരു പതിനഞ്ച് സീറ്റ് ഉള്ള ഒരു ട്രാവലർ ആ ആ ആ അപ്പോൾ സ്ഥലം ഉണ്ടാകും വേറെ കുഴപ്പം ആ എ സി ആണോ നോൺ എ സി ആണോ വേണ്ടത് എ സി അല്ലേ ആ ആ എ സി ആണെങ്കിൽ ആദ്യത്തെ ആ ഒരു എൺപത് കിലോമീറ്ററ് ഇരുപത്തഞ്ച് രൂപ വെച്ചാകും കിലോമീറ്റർ ആ അത് അത് അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ അത് റേറ്റ് അല്പം കുറയും ഒരു ഇരുപതൊക്കെയേ വരത്തുള്ളൂ നോൺ എ സി യിൽ പോകാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ആ ഇത്രയും ദൂരം പോകുമ്പോൾ എപ്പോഴും എ സി യാണ് നല്ലത് കാരണം വേറെ കാറ്റ് അടിക്കത്തില്ല ഇപ്പോം ചെറിയ മഴ പെയ്താലും എ സി ഇടുമ്പോൾ അതിനകത്ത് ഒരു ചീഞ്ഞ് പുഴുക്കളൊന്നും ഒന്നും വരില്ല അല്ല അത് അതിനല്ലേ അതല്ലേ റേറ്റ് കുറച്ച് പറഞ്ഞിരിക്കുന്നെ നിങ്ങൾ വേറെ തിരക്കിക്കോ ഞങ്ങളുടെ ട്രാവൽസും വേറെ ഉള്ള നിങ്ങളെ അടുത്ത് വേറെ ആ ആ അതെ നിങ്ങൾക്ക് ഇതാ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വണ്ടിയുണ്ട് ഏതു രീതിയിലുള്ള ഓക്കെ നിങ്ങൾക്ക് ആയിക്കോട്ടെ അത് നിങ്ങളുടെ സമയം എത്രയാണോ അത് ഞങ്ങൾ റെഡിയാക്കി തന്നോളാം അതെ വണ്ടി ഇഷ്ടം അവൈലബിൾ ആണ് ഡ്രൈവർ ഉണ്ട് മറ്റ് കുഴപ്പങ്ങൾ ഒന്നുമില്ല അല്ലല്ല കിലോമീറ്റർ ആണ് കിലോമീറ്റർ ആണ് കിലോമീറ്റർ ആണ് അതെയതെ അതെ ഗുരുവായൂർ വരെയല്ലേ അപ്പോൾ കിലോമീറ്ററ് കണക്ക് ആ വെച്ചാണ് പോകുന്നത് ഇരുപത് ഇരുപത് അഞ്ച് രൂപയുടെ വ്യത്യാസം വരും ഇല്ല കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഡീസലിൻ്റെയൊക്കെ വില അറിയാമല്ലോ ഇല്ല ഇല്ല കുഴപ്പം ഇല്ല നിങ്ങൾ വേറെ തിരക്കിക്കോ ഇതിൽ ഇതാണ് ഞാൻ വളരെ കുറച്ചാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇത് ബുക്ക് ചെയ്യാമല്ലോ കുഴപ്പം ഇല്ലല്ലോ ആ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങടെ പേരും ഡീറ്റെയിലും എല്ലാം ഒന്ന് അയച്ചു തന്നാലെ ഞാനത് ക്ലിയർ ചെയ്തോളാം ഈ നമ്പറിലോട്ട് അയച്ചു തന്നാൽ അത് ക്ലിയർ ചെയ്തോളാം ആ ശരി ശരി ഓക്കെ ഓക്കെ എന്നാൽ ഓക്കെ ആ ഓക്കെ ശരി